ആ പറയൂ ആ നമ്മളിവിടെയിപ്പോൾ രണ്ട് ടൈപ്പ് എണ്ണ കൊടുക്കുന്നുണ്ട് യുസേജ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിയിലെ എണ്ണ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ മേത്ത് കയ്യിലും കാലിലൊക്കെ തേക്കാം അതുപോലെ ഇപ്പോൾ കാച്ചിയിട്ടാണെങ്കിൽ മുടിയിൽ തേക്കാം കറ്റാർ വാഴ കണ്ണിൽക്കണ്ട സാധനങ്ങളൊക്ക കൂട്ടി പിന്നെ ഇതാക്കിയിട്ട് ഇപ്പോൾ അതായത് ഈ എന്താ പറയുക ചെമ്പരത്തീൻ്റെ ഇല മറ്റേ ഈ എന്താണ് വേറെ രണ്ട് മൂന്ന് സാധങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഓർമ്മയില്ല അങ്ങനത്തെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇട്ട് കാച്ചിയ എണ്ണ എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആവും പിന്നെ മുടി വളരും പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് മറ്റേ നമ്മുടെ പാചകം ചെയ്യാൻ ഉപയോഗിക്കാം പണ്ടുള്ള ആൾക്കാരൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോൾ അത് എന്താണെന്നൊ മറ്റേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് ആ നമ്മൾ ഉണക്കിയിട്ട് തന്നെയാണ് പച്ച ആട്ടില്ല ഉണക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്

ആ ആ ആ ഉപയോഗിക്കാമല്ലോ ഇതു തന്നെയാണ് ഇതു തന്നെയാണ് വിളക്ക് വയ്ക്കാൻ ചില ആൾക്കാർ ഉപയോഗിക്കും വെളിച്ചെണ്ണ ചില ആൾക്കാർ ഉപയോഗിക്കും കുഴപ്പമൊന്നുമില്ല അതായത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല അതായത് മറ്റേ കത്തുമ്പോൾ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ അതായത് വായുവിന് മലിനീകരണം ഒന്നുമുണ്ടാവില്ല നമുക്ക് ഇത് എന്തിനു വേണ്ടിയും ഉപയോഗിക്കാം നമ്മൾ വെളിച്ചെണ്ണ ശുദ്ധമായത് കാരണംകൊണ്ട് നമ്മളെ ഇതിന് യാതൊരു കലർപ്പുമില്ല കൊപ്ര മാത്രം അതായത് നല്ല കൊപ്ര തിരഞ്ഞെടുത്ത് നല്ലോണം അത് കറക്ട് ആയിട്ട് ചൂടാക്കി അതായത് അത് ഉണങ്ങിയതിനു ശേഷം അത് ആട്ടണം ആ വെളിച്ചെണ്ണ മാത്രം അതിൽ വേറെ ഒരു സാധനം കെമിക്കലോ വേറെ ഒന്നും ആഡ് ചെയ്യില്ല അതിലേക്ക് ഇതു നമ്മൾ ഒരു ഇതിലൊരു സാധനവും ഇട്ടു വയ്ക്കണ്ട കൃത്യമായിട്ടൊരു ആറ് മാസം മുതൽ ഒരു കൊല്ലം വരെ ഒരു കുഴപ്പവുമില്ലാണ്ടിരിക്കും ആകെ ഇതിൽ വരണ കംപ്ലയിൻ്റ് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ സാധനം തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടി ആവും ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളു വേറെ ഒരു കംപ്ലൈൻ്റും ഇല്ല അത് ഫസ്റ്റ് ഒരു അഞ്ചു മിനുട്ട് നേരം വെയിലെത്തു വെക്കുക അല്ലെങ്കിൽ ഒന്നു ജസ്റ്റ് ചൂടാക്കുകയോ ചെയ്താൽ കറക്ട് അതേപോലെ തിരിഞ്ഞ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ രൂപത്തിലാവും അത്രേയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ അതിൽ ഒന്ന് തീർന്നിരിക്കുകയാണ് ചക്കിലാട്ടിയ എണ്ണ തീർന്നിരിക്കുകയാണ് ചക്കിലാട്ടിയ എണ്ണ ഇരുന്നൂറും മറ്റേ എക്സ്പ്പെല്ലറിൽ ആട്ടിയ എണ്ണ നൂറ്റി എൺപത് ഉറുപ്പികയാണ് നമ്മൾ വിൽക്കണത് അതിന് വ്യത്യാസം എന്നു പറയാൻ ആയിട്ട് ഒന്നുമില്ല എക്സ്പ്പെലർ എന്നു പറയുമ്പോൾ മെഷീനിൽ ആട്ടി വരുന്നതാണ് അത് എല്ലാം മെഷീൻ്റെ അത് മെഷീൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആയി വരുന്നതാണ് അപ്പോൾ അതു കുറച്ച് ചൂടാവും എക്സ്പ്പെലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ്റെ ഉള്ളിലേക്ക് പോവില്ല പുറത്ത് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും ഗ്രൈൻഡ് ചെയ്യണതും കാര്യങ്ങളൊക്കെ കാണാം ഈ സാധനം പൊടിഞ്ഞു പോകണതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ചൂടാവില്ല അതു കാരണം ആ ചൂട് പുറത്തേക്ക് തള്ളിപ്പോകണ കാരണംകൊണ്ട് എണ്ണ ചൂടാവില്ല അതിൽ എണ്ണ കുറച്ചുനേരം ചൂടായിട്ട് വരും അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ല പക്ഷെ ഈ നമ്മൾ ചക്കിലാട്ടുമ്പോൾ എണ്ണ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല ഇത് തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ എൻപത് ശതമാനമൊക്കെ എണ്ണ കിട്ടുകയുള്ളൂ ബാക്കി ആ എണ്ണ പിണ്ണാക്കിലായിട്ട് പോവും അപ്പോൾ നമുക്ക് എണ്ണ കുറവായിട്ടേ കിട്ടുകയുള്ളൂ അതിൽ അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതൽ ഓക്കേ ശരി ഓക്കേ ശരി ശരി ശരി ശരി